ആ സാർ വരൂ ഏത് പ്രൊഡക്റ്റാണ് നോക്കുന്നത് ഓ അതെ സാർ എല്ലാം നോക്കുന്നുണ്ട് അല്ലേ ഓക്കെ ആ വരൂ വരൂ നമുക്ക് ഇവിടെ എല്ലാത്തിന് എല്ലാത്തിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട് സാറിന് നമുക്ക് ആദ്യം ഏതാ നോക്കുന്നത് ആ ആ എന്നാൽ ടി വി നോക്കാം സാർ ടി വി നമുക്ക് ഒരു പത്തായിരം തൊട്ട് നല്ല ബ്രാൻഡഡ് സോണി അതിൻ്റ ഒരു ഒരു ലക്ഷം ഒന്നര ലക്ഷം വരെ ഉള്ള ടിവികൾ ഉണ്ട് സാർക്ക് ഏത് റേഞ്ചിൽ ആയിരിക്കും സാറ് നോക്കുന്നുണ്ടാവുക ആ അത് ഇല്ല ഇല്ല സാറിൻ്റ ബഡ്ജറ്റ് സാർ ടിവിക്ക് എത്ര രൂപ സാർ ബഡ്ജറ്റ് കുഴപ്പം ഇല്ല ഓക്കെ മുപ്പത്തിരണ്ട് ആ മുപ്പത്തിരണ്ട് ഇഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര ഇതെ വരുന്നുളളൂ ഇരുപത് ഇരുപത്തയ്യായിരം രൂപ മുതല് തുടങ്ങുന്നുണ്ട് ഇപ്പോൾ എംഐൻ്റ ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് പതിമൂന്ന് പതിനാലായിരം ഉർപ്യ മുതല് സ്മാർട്ട് ടി വി കിട്ടും ഇപ്പോൾ സാറ് സ്മാർട്ട് ടി വി ആണോ അതോ സാധാ ടി വി ആണോ നോക്കണ ആ സ്മാർട്ട് ടി വി നോക്കേണ്ടത് അപ്പോൾ സാർ ആ സ്മാർട്ട് ടി വി ഇപ്പോൾ കുറച്ച് മുപ്പത്തിരണ്ട് പറയുമ്പോൾ കുറച്ച് പൈസ അത് വരും നാൽപ്പതിൻ്റ നോക്കണമെങ്കിൽ നോക്കാം ഒരു മുപ്പതിനായിരം രൂപ ഇപ്പോൾ നല്ല ബ്രാൻഡഡ് സാംസംഗിൻ്റ സോണീടെ വരുമ്പോൾ നാൽപ്പത്തേഴായിരം രൂപ ആ റേഞ്ച് ഒക്കെയെ സ്മാർട്ട് ടി വിക്ക് വരുന്നുള്ളൂ അതും എം എടെ ആവുമ്പോൾ ആൻഡ്രോയിഡിൻ്റെയാ വരുന്നത് സാംസംഗിൻ്റ ഒക്കെ ആവുമ്പോൾ ഇൻബിൽറ്റ് ആയിട്ട് അവരുടെ അവര തന്നെ ഒഎസാണ് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നത് അപ്പോൾ അതിൻ്റെത് ആയ സ്പീഡ് കൂടുതൽ ഉണ്ടാവും അതെ അതെ എല്ലാ ഫീച്ചേഴ്സും കിട്ടും ഗൂഗിളിൻ്റ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും പക്ഷെ അവരുടെ സൊ ഒഎസ് ആയിരിക്കുമെന്ന് മാത്രമേ വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ അത് ആൻഡ്രോയിഡ് പോലത്തന്നെ ഉണ്ടാവുകയുള്ളൂ ആ സൊ വാറണ്ടി വന്നിട്ട് നമുക്ക് ഇതിന് അത് ഇപ്പോൾ സാറ് സാംസംഗ് അത് എൽ ജി തന്നെ ആണോ നോക്കുന്നത് ഓക്കെ ആ സാർ എൽ ജി ആണെങ്കിൽ നമുക്ക് ഒരു മുപ്പത്തിമൂന്ന് ഇരുന്നൂറ് ആണ് വരണത് സാർക്ക് അത് നാൽപ്പത് ഇഞ്ച് ആണ് ഇപ്പോൾ മുപ്പത്തിരണ്ട് ഇഞ്ച് പറയുവാണെങ്കിൽ ഒരു ഇരുപത്തിയാറ് എണ്ണൂറ് വരുന്നുണ്ട് ഇതിന് വന്ന് സാർ നമുക്ക് ഒരു വൺ ഇയർ ഒരു വാറണ്ടി ഫുൾ കവറേജ് വാറണ്ടി ആണ് കമ്പനി തരുന്നത് അപ്പോൾ നമ്മുടെ ഒരു സാർ ഒരു രണ്ടായിരം രൂപ അഡീഷണൽ പേ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു മൂന്ന് വർഷത്തെ എക്സ്ചേഞ്ച് വാറണ്ടി അതായത് വൺ ഇയർ കമ്പനി വാറണ്ടിയും പ്ലസ് ഒരു രണ്ട് വർഷത്തെ ഒരു നമ്മുടെ ഒരു വാറണ്ടിയും കൂടി ഫുൾ കവറേജിന് വരുന്നുണ്ട് പിന്നെ സാർ ഒരു അയ്യായിരം രൂപയും കൂടി പേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഫിസിക്കൽ ഡാമേജ് വാറണ്ടിയും കൂടി വരുന്നുണ്ട് ഇപ്പോൾ കമ്പനി വാറണ്ടി ആയാലും താൽക്കാലിക ഫിസിക്കൽ ഡാമേജോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആക്സിഡൻ്റൽ ബെനിഫിറ്റ്സ് ഒന്നും കിട്ടില്ല ഇപ്പോൾ ഇടി വെട്ടീട്ട് പോയത് ആണെങ്കിൽ ഒന്നും നമുക്ക് വാറണ്ടീൻ്റ കാർഡ് ആവില്ല മാനുഫാക്ചറിംഗ് ഡിഫെക്റ്റും സോഫ്റ്റ്വെയർ കംപ്ലയിൻറ്റും മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ഇപ്പോൾ ഒരു സാറിന് ഫൈവ് തൗസൻഡ് പേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് ഒരു ഫുൾ ഇയറ് വൺ ഇയറിൻ്റ ഒരു ഫുൾ കവറേജ് ആ ഫിസിക്കൽ ഡാമേജടക്കം ഫുൾ കവറേജ് നമുക്ക് ഒരു വരുന്നുണ്ട് നോഷാർക്കിന് പുതിയ ഡിവൈസ് റീപ്ലേസ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ സാറിക്ക് മൊത്തം ഒരു ആ പറഞ്ഞോ സാർ ഓക്കെ ഇത് നോക്കാ സാറ് പിന്ന അത് അഡീഷണൽ ഫൈവ് തൗസൻഡ് പേ ചെയ്ത് ഇൻഷുറൻസ് കവറേജ് എടുക്കുന്നുണ്ടോ അതോ എടുക്കാം ഓക്കെ ഓക്കെ അപ്പോൾ സാർക്ക് ഒരു തെർട്ടി ടുവിൻ്റ മതിയോ അതോ ഫോർട്ടി ടു ഫോർട്ടി ടു ആവുമ്പോൾ കുറച്ച് വലിപ്പം ഉണ്ടാവും

ആ ആ അതെ അല്ലെ ഓക്കെ ഓക്കെ സാർ അപ്പോൾ തെർട്ടി ടു പറയുമ്പോൾ സാർക്ക് ഒരു ഇരുപത്തിയാറ് എണ്ണൂറും അയ്യായിരം മുപ്പത്തിയൊന്ന് എണ്ണൂറ് ആണ് വരണത് ഓക്കെ സാർ ടിവിക്ക് ഇനി ആ വേറെ എന്തെങ്കിലും ഓക്കെ അപ്പോൾ ഇത് ഇത് പാക്ക് ചെയ്യാൻ പറയാം അല്ലെ സാർ ഓക്കെ ഓക്കെ ഓക്കെ ആ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അത് അപ്പുറത്തെ സെക്ഷൻ അതാ സാർ വരൂ ഓക്കെ ആ സാർക്ക് ഡബിൾ ഡോറ് വേണോ

ഓക്കെ ആ ആ ഫ്രിഡ്ജ് അല്ലെ ആദ്യം വരുന്നത് നമുക്ക് ഫ്രിഡ്ജ് ഒന്ന് നോക്കീട്ട് പോവാം ഈ ഫ്രിഡ്ജ് ഡബിൾ ഡോർ വേണോ എങ്ങനെ ആണ് അതെ സാറ് വല്ല ബ്രാൻഡ് നോക്കി വെച്ചിട്ട് ഉണ്ടോ നമുക്ക് എല്ലാ ബ്രാൻഡും ഇവിടെ അവൈലബിൾ ആണ്

അമ്പതിനായിരം മുതല് നമുക്ക് ഒരു എൺപതിനായിരം വരെ ഉള്ള ഒരു ഇത് വരുന്നുണ്ട് പിന്ന അതിൻ്റ താഴെ നോക്കുകയാണെങ്കിൽ ഒരു നാൽപ്പതിനായിരത്തി നാൽപ്പത്തയ്യായിരം രൂപ ആ റേഞ്ചില് വരുന്നുണ്ട് അല്ല സിംഗിൾ ഡോർ മതി അല്ലെങ്കിൽ കുറച്ച് കൂടി റേറ്റ് കുറയും

ഓക്കെ ആ സാർ അപ്പോൾ അമ്പതിൻ്റ ഉള്ളിലെന്ന് പറയുമ്പോൾ ഇത് ഇപ്പോൾ ഇത് നല്ല ഒരു ഇത് ആണ് നമുക്ക് അത്യാവശ്യം കപ്പാസിറ്റി വരുന്നുണ്ട് ഫ്രീസറിന് വേറെ ഡോറ് വരുന്നുണ്ട് ഫ്രീസറിന് സിംഗിൾ ഡോറാ വരുന്നത് മറ്റേ താഴത്തെ ബോട്ടം സ്പേസിന് ഡബിൾ ഡോറ് വരുന്നുണ്ട് ആ പിന്നെ സാറിന് ഇത് സാർ കളർ ചേഞ്ച് ആയിട്ട് മോഡൽ ഡിസൈൻസാ സാർക്ക് ഇഷ്ടം ഉള്ള കളർ ഏതാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് ഡെലിവറാ ചെയ്യുക ഇത് ജസ്റ്റ് ഡെമോ പീസ് മാത്രമാ ആ സാർ കളറ് കളറില് കാറ്റലോഗ് ഉണ്ട് സാർക്ക് ഏത് കളറാ വേണ്ടത് സെലക്ട് ചെയ്ത് കയിഞ്ഞാൽ ആ ഓക്കെ ശരി സാർ അപ്പോൾ സാർക്ക് ഇത് എടുക്കാം അല്ലേ ഓക്കെ സാറ് ഒന്ന് അഡ്രസ്സ് ഒന്ന് ഫില്ല് ചെയ്ത് തന്ന് കഴിഞ്ഞാൽ നമ്മൾ അത് സാർക്ക് ഡെലിവറി ഫ്രീ ഡെലിവറി ഓക്കെ അല്ല സാറിൻ്റ പേയ്മെന്റിന്റെ സമയത്ത് ബില്ലിംഗ് സെക്ഷനില് എഴുതി കൊടുത്താൽ മതി ആ സാർ വാഷിംഗ് മെഷീൻ വന്നിട്ട് നമുക്ക് ഐ എഫ് ബീടെ ഉണ്ട് പാനസോണിക്കിൻ്റെ ഉണ്ട് വേൾപൂളിൻ്റെ ഉണ്ട് അതൊക്കെയാ ബ്രാൻഡഡ് ആയിട്ട് വരുന്നത് പിന്നെ അല്ലാതെ മറ്റ് സാധനം റിലയൻസിൻ്റെ റീകണക്ട് അങ്ങനത്തെ സാധനങ്ങൾ എല്ലാം ഉണ്ട് സാറ് ഏത് ബ്രാൻഡാ നോക്കുന്നത് സാർ നല്ല ബ്രാൻഡെന്ന് പറയുമ്പോൾ ഐ എഫ് ബീടെ നല്ല കമ്പനിയാ വാഷിംഗ് മെഷീന് വേണ്ടിയിട്ട് ഉള്ള കമ്പനി ആണ് നല്ലൊരു ബ്രാൻഡ് ആണ് ഇന്ത്യൻ കമ്പനീൻ്റ ആണ് ആ ഒരു ഇതിൻ്റെ സാർക്ക് വരണത് ഒരു ഇരുപത്തിരണ്ട് മുതല് തുടങ്ങുന്നുണ്ട് ഇരുപത്തിരണ്ടിൽ വരുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് ഡ്രയർ അടക്കം ഇൻക്ലൂഡഡ് ആണ് പകല് ഹീറ്റിംഗ് ആ സാർ വാറണ്ടി വൺ ഇയറ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഫുൾ വാറണ്ടി ഉണ്ട് പിന്ന ഒരു പത്ത് വർഷത്തെ അതെ പത്ത് വർഷത്തെ മോട്ടർ വാറണ്ടി സ്പെയർ പാർട്സ് സപ്പോർട്ടും ഉണ്ട്

ആ സാർ അത് അല്ല അല്ല നമ്മള് ഡെലിവറി ചെയ്യും എന്നിട്ട് കമ്പനി വന്ന് ഇൻസ്റ്റാൾ ചെയ്യും സാറ് പാക്ക് പൊട്ടിക്കുകയൊന്നും വേണ്ട ഡെലിവർ ചെയ്ത അങ്ങനെ അങ്ങനെ വെച്ചാൽ മതി അതാത് കമ്പനി ഇപ്പോൾ ടിവിയുടെ ആണേൽ ടിവിയുടെ കമ്പനിക്കാര് വെറും ഐ എഫ് ബി ആണെങ്കിൽ ഐ എഫ് ബിയുടെ കമ്പനിക്കാര് വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് സാറിന് വർക്കിംഗ് എല്ലാം പറഞ്ഞ് തന്നിട്ടേ അവര് പോവുകയുള്ളൂ ആ സാർ ഇന്ന് ഇപ്പോൾ ഇന്ന് ഡെലിവറി ചെയ്യാൻ പറ്റുമോയെന്ന് ഉള്ളത് ഇന്ന് ഇപ്പോല പിള്ളേര് വേറെ ഡെലിവറിക്ക് പോയിരിക്കുകയാ അപ്പോൾ ഇന്ന് ചിലപ്പോൾ ഡെലിവറ് ചെയ്യാൻ പറ്റില്ല സാർക്ക് നാളെ ഒരു നാളെ വൈകീട്ടോടു കൂടി ഡെലിവറ് ചെയ്യാം പിന്നെ കമ്പനിയിൽനിന്ന് വരണത് അവര് അവര് വിളിച്ചിട്ട് ആണ് വരിക അത് ഒരു രണ്ട് ദിവസത്തിൻ്റ ഉള്ള് വരും ആ സാർ ഓക്കെ സാർ അപ്പോൾ സാർക്ക് ആ ബില്ല് ബില്ല് അവിടെ പോയി പേ ചെയ്യാം സാർ വരൂ ആ ഞാൻ പറഞ്ഞ് പേ ചെയ്യാം ഓക്കെ ആ ശരി ഓക്കെ നോക്കാം